വീട്ടില് അമ്മയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ഉള്ളതാണ് അപ്പം അതിനകത്ത് യൂസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കൊരു സർജറിയുടെ ഫലമായിട്ട് പക്ഷേ ഞങ്ങള് ആ സിറ്റുവേഷൻ ടൈമില് ഓർത്തില്ല പെട്ടെന്ന് അഡ്മിറ്റ് ആകേണ്ടി വന്നു ഒരു സർജറിക്ക് സിറ്റുവേഷൻ എല്ലാം റെഡിയായി പക്ഷേ ബില്ലിങ്ങിന് ചെന്നപ്പോഴാണ് അവര് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരോ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് വല്ലതും ഉള്ളതാണോന്ന് അപ്പഴാണ് ഞങ്ങള് അതിൻ്റെ കാര്യം ഓർക്കുന്നത് അപ്പം പിന്നെ നമ്മള് കൊടുത്തു ഡയഗ്നോസ്റ്റിക് ആള് റേഡിയോളജി ആയാലും എക്സ് റേ ബ്ലഡ് പല കാര്യങ്ങളും അവിടെ ചെയ്തു സർജറിക്ക് മുമ്പായിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടല്ലോ അപ്പം ടെസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തു ചെയ്ത് ബില്ലിങ്ങിൻ്റെ ടൈം ആയപ്പളാണ് അവര് നമ്മളോട് ചോദിച്ചത് ഇതുപോലെ ഇങ്ങനെ വല്ലതും ഇൻഷുറൻസോ വല്ലതും ഉള്ളതാണോന്ന് നമ്മള് അതിനെ പറ്റി പെട്ടെന്ന് ഓർത്തു അത് അവിടെ കൊണ്ട് കൊടുത്തു നോർമലി എത്രയാണോ അതിൻ്റെ ബില്ലും പൈസയൊക്കെ ആവുന്ന അതിൻ്റെ അത്രയും പോലും ആയില്ല വളരെ തുച്ഛമായ പൈസയില് നമുക്ക് ആ ടെസ്റ്റും സർജറി കാര്യങ്ങളും അപ്പം പൈസ ഒട്ടും കൊടുക്കേണ്ടി വന്നില്ലന്ന് പറയുന്നില്ല പക്ഷേ പൈസ ആയി പക്ഷെ എന്നാൽ തന്നെയും ഇത് ഉള്ള കൊണ്ട് വളരെ തുച്ഛമായ രീതിയിൽ മീൻസ് കൈയ്യിന്ന് വളരെ കുറച്ച് പൈസ അതിനുവേണ്ടി നമ്മൾക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പം നല്ല രീതിയില് അത് യൂസ്ഫുൾ തന്നെയാണ് എല്ലാത്തിനും യൂസ്ഫുള്ളാണ് കാരണം കുടുംബത്തിനാണെങ്കിലും ഏത് സിറ്റുവേഷനിൽ നമുക്ക് യൂസാണ് എടുത്തു വെച്ചാൽ അത് വളരെ യൂസാണ് കാരണം അന്നേരം ഞങ്ങള് ഓർത്തില്ല അവരും കൂടി ചോദിച്ചപ്പഴാണ് ആ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്ന് നമ്മള് ഓർക്കുന്നെ തന്നെ അപ്പം നമ്മള ഫാമിലിക്ക് ആണേലും